ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി ആറ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് ആറ് രണ്ടായിരത്തി അഞ്ച് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്